ഇപ്പോൾ ഇന്ത്യയിലെ ഭക്ഷണമെന്ന് പറയുന്നത് ഫുള്ള് എന്താപറയാ കെമിക്കലാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ചേരുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണം ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം അപ്പം ഡെയിലി ലൈഫിലെല്ലാവരും ഇപ്പം ജങ്ക് ഫുഡാണ് കഴിക്കുന്നത് ഇപ്പം വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നവർ ഭയങ്കര കുറവാണ് അപ്പം അത് നമ്മുടെ ദൈനം ജി ദിന ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഭയങ്കര കൂടുതലാണ് അപ്പം ജനപ്രിയ വിഭവങ്ങളെന്ന് പറയുവാണെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും തന്നെ മിക്കവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പൊറോട്ട ബീഫ് അല്ലെങ്കിൽ ബിരിയാണി ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള മസാലകളക്കെ നമുക്കൊത്തിരി എന്നാ പറയാ ഒത്തിരി ദോഷകരമാണ് ഈ അജിനോമോട്ട ഇതൊക്ക ഭയങ്കര ശരീരത്തിന് ഭയങ്കര ദോഷം ഒക്കെയാണ് അപ്പം പണ്ട് കാലത്തൊക്കേന്ന് പറഞ്ഞാൽ മസാലകളായിട്ട് നമ്മൾ എല്ലാം സെപ്പറേറ്റ് മുളക് മല്ലി എല്ലാം നമ്മൾ പ്രത്യേകം ഉണക്കി പൊടിച്ചൊക്കെയാണ് നമ്മൾ മസാലകളായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ എല്ലാം കെമിക്കലാണ് അപ്പം ഇന്ത്യയിലെ ഭക്ഷണമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എല്ലാം നമ്മുടെ ശരീരത്തിന് മോശവായിട്ടുള്ള ഫുഡ്കളാണിപ്പോൾ എല്ലാവരും കഴിക്കുന്നത്